ഐഎസ്ആർഓ ഫെസിലിറ്റി ഐഎസ്ആർഓ ഫെസിലിറ്റി ഹലോ

ഓക്കേ മനസ്സിലായി പ്ലസ് ടൂന് ഏതു കോഴ്സ് ആയിരുന്നു എടുത്തത് ഏതു ജോബാണ് ഐ എസ് ആർ ഓയിൽ പ്രിഫർ ചെയ്യുന്നത്

ഈ ഇതിൻറെ ജോബിനെപറ്റിയും അതുപോലെ നമ്മളെന്തു പഠിക്കുന്നു എന്നുള്ളതിനെപ്പറ്റിയും ഉള്ളൊരു ഡീറ്റൈൽ വീഡിയോ ഞാനീ നമ്പറിലേയ്ക്ക് അയച്ചുതരാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെയുണ്ടെങ്കിൽ ഈ നമ്പറിലേയ്ക്ക് തന്നെ വിളിച്ചാൽ മതി ഏതുസമയം വേണേലും വിളിക്കാം ഓക്കെ വേറെന്തെങ്കിലും അറിയാൻ യൂഷ്വലി സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ടുതന്നെ സയൻസ് ഗ്രൂപ്പ് ഉള്ള ഡിഗ്രി തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇങ്ങനെ ഒരു എയിമിലേയ്ക്ക് പോകുമ്പോൾ ആ ബി എസ്സി ഫിസിക്സ് ബി എസ്സി കെമിസ്ട്രി പോലുള്ള കോഴ്സുകൾ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുതന്നെയല്ല സയൻസ് കോഴ്സുകൾ രണ്ടായിരത്തിലധികം കോഴ്സുകൾ നമുക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് ബി എസ്സി എല്ലാ ഡി അണ്ടർ ജ

ആ കേൾക്കാം കൂടുതൽ കാര്യങ്ങൾ ഈ നമ്പറിലേയ്ക്ക് അയച്ചുതരുന്നതായിരിക്കും ഓക്കേ

ആ ഹലോ പേരെന്താ ഫുൾ നെയിം ഒന്ന് പറയാമോ ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ദേവിക പി ആർ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ